പ്രാദേശികമായതോ സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ അന്താരാഷ്ട്ര തലത്തിലൊക്കെ വിവിധ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ പങ്കെടുക്കുന്നത് എന്നു പറയുന്നത് വളരെ എന്താ റിസ്ക്കുള്ള കാര്യമാണ് കാരണമെന്നാ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചുരുക്കം ചിലർക്ക് മാത്രമേ ലഭിക്കുന്നൊരു ഭാഗ്യമാണ് പാഷനേറ്റായിട്ടുള്ള ഒരുപാട് ആളുകൾക്കൊന്നും ലഭിക്കുന്നതല്ല അത്രയും പാഷനേറ്റായിട്ട് തൻ്റെ ഫോട്ടോഗ്രാഫി എന്നു പറയുന്ന ആ ഒരു ഫീൽഡിൽ അത്രയും പാഷനേറ്റായിട്ട് അതിനു വേണ്ടി ഒരുപാട് കഠിന ശ്രമങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാർക്കു മാത്രം ലഭിക്കപ്പെടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതെന്നു പറയുന്നത് അത് എന്താ കേന്ദ പ്ര സംസ്ഥാന തലത്തിലൊക്കെ ടൂറിസ്റ്റ് വകപ്പുകളും അതു പോലെ തന്നെ മാസികകൾ കേ അങ്ങനെ കേന്ദ്ര സ സർക്കാരന്താരാഷ്ട്ര തലത്തിലൊക്കെ ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോണ്ടസ്റ്റുകളൊക്കെ നടത്താറുണ്ട് ആ ഒരു കോണ്ടെസ്റ്റുകളൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് സാധാരണയായിട്ട് അതിൽ പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ അതിൽ വിജയികളാകുന്ന ആളുകളായിരിക്കും പിന്നീട് ആ ഒരു ഫോട്ടോഗ്രാഫി എന്ന മേഖലയിൽ ഏറ്റവും ഉന്നതമായുള്ള ഏതെങ്കിലും ഒരു തലത്തിൽ ഫോട്ടോഗ്രാഫി ആയിട്ടു തന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാഷനായിട്ടത്ര മേലാഗ്രഹത്തോടെ കൊണ്ട് നടക്കുന്ന ഒരാളെക്കൊണ്ട് മാത്രം സാധ്യമാകുമെന്നാണ് കാരണം മത്സരത്തിന് വിവിധമായ തലങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് ആ ചട്ടങ്ങളും തലങ്ങളിലുമെല്ലാം അത്രയേറെ പാഷനേറ്റായിട്ട് ഒരു ഫോട്ടോ എടുത്ത് അതിന് ഏറെ ഇഷത്തോടെ അതിൻ്റെ എല്ലാ ഭാഗങ്ങൾ ക്യാച്ച് ചെയ്ത് അതിൻ്റൊരു ഭംഗിയെ പകർത്തിയെടുക്കാൻ സാധിക്കണം ഒരു റിയൽ ഒരു നമ്മൾ യഥാർത്ഥത്തിലൊരു പക്ഷെ എങ്ങനെ കാണുന്നു അത് ആ ഫോട്ടോയിലൂടെ അത്ര മനോഹരമായിട്ട് എങ്ങനെ കാണിക്കാനായിട്ട് സാധിക്കുന്നുവോ അത്തരത്തിൽ ആ ഒരു ഫോട്ടോഗ്രാഫിയിലൂടെ കാണി ആളുകളിലേക്കെത്തിക്കാൻ സാധിക്കുന്നുവോ അത്തരത്തിലുള്ളൊരു ഫോട്ടോഗ്രാഫി കാര്യങ്ങൾ മാത്രമേ നല്ലൊരു ഫോട്ടോയായിട്ട് നിലനിൽക്കുകയുള്ളൂ അങ്ങനെയുള്ള ഫോട്ടോകൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയാണെ ഏറ്റവും മനോഹരമായിട്ട് ആ ഒരു ആ ഫോട്ടോ നമ്മൾ ആ ഒരു ചെയ്യുന്ന വർക്കിനോട് നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തി വേണം ചെയ്യാനായിട്ട് ഒരുപാട് ചട്ടങ്ങളിലൂടെയാണ് ഈ ഫോട്ടോ ഗ്രാഫി എന്നു പറയുന്ന ആ ഒരു മത്സരത്തിലായിരുന്നാൽ പോലും ആ ഒരു ഏറ്റവും വലിയ ഉയർന്ന തലത്തിലേക്ക് എത്തണമെങ്കിൽ അത്ര മാത്രം കഷ്ടപ്പെടുകയും അത്രത്തോളം ഓരോ തലങ്ങളും കഴിഞ്ഞു പോയാൽ മാത്രമേ അത്രയും വലിയ ഉയരത്തിൽ ഐ മീൻ ആ ഒരു ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിക്കുകയുള്ളൂ അത്രയും പാഷനേറ്റായിട്ട് മാത്രമേ ഉള്ളു ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലും എന്താ ടൂറിസം വകുപ്പിൻ്റെ പല മേഖലകളിലും വന്യമൃഗങ്ങളെയായി വന്യമൃഗങ്ങളെയും അതിൻ്റെ ഓരോ ചലനങ്ങളെയും അത്ര അതിസൂഷ്മമായിട്ട് പകർത്തിയെടുക്കാനായിട്ട് ഒരു ഫോട്ടോഗ്രാഫറിനു സാധിക്കണം ഒരു ഫോട്ടോ കണ്ടാൽ കാണുന്ന മാത്രയിൽ പറയാതെ തന്നെ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന തലത്തിൽ അത്രമേൽ മനോഹരമായിരിക്കണം ഒരു ഫോട്ടോ എന്നു പറയുന്നത് പേഴ്സണലി ഫോട്ടോഗ്രാഫിയുമായിട്ട് ഫോണിലെടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫി അല്ലാതെ വേറൊരു ഫോട്ടോഗ്രാഫിയായിട്ട് എനിക്ക് പേഴ്സണലി ഒരു ബന്ധമില്ല എങ്കിൽ പോലും ഒരു ഫോൺ ഫോട്ടോഗ്രാഫി ആയിരുന്നാൽ പോലും അത്രമേൽ അത് ആ ഒരു ഫോട്ടോഗ്രാഫി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ

ഒരു ഫോട്ടോയെടുത്ത് അത് എഡിറ്റ് ചെയ്ത് അതിനെ ഏറ്റവും മനോഹരമായിട്ട് ചിത്രീകരിക്കാനാണ് യഥാർത്ഥത്തിൽ നോക്കേണ്ടത്